ചേട്ടാ എനിക്ക് പൂക്കളത്തിന് വേണ്ടി കുറച്ച് പൂ വാങ്ങാൻ ആയിരുന്നെ അല്ല അല്ല കുറച്ച് വലിയ ഒരു കുടുംബശ്രീ ഞങ്ങളുടെ യൂണിറ്റില് ഒരു ഇതിന് ആണ് പരിപാടിക്ക് ആണെ കുറച്ച് വലിയ ആ കുറച്ച് നിറയെ എമൗണ്ട് പൂക്കള് വേണം ആ അതെ എന്തൊക്കെ പൂ നമ്മള് സാധാരണ എന്തൊക്കെ പൂ കൊടുക്കാറ് ചെണ്ടുമല്ലി അങ്ങനെ ഒക്കെ ഇല്ലെ

ഒര് എണ്ണത്തിന് ഇരുപത് രൂപ വരുന്നുണ്ടോ ഓ ഓ ഓ ഓ ഉണ്ട് അല്ലെ ആ പൂക്കളത്തിന് ഉപയോഗിക്കുന്ന് ആ ഇത് എല്ലാ പൂവിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണോ അതോ മൊത്തത്തില് ഒര് റേറ്റ് ആണോ ഇത് കൊടുക്കണത് ഓരോ പൂവിനും ഓരോ റേറ്റാ ആ ഒരു കിലോ ഇരുന്നൂറ് രൂപ അല്ലെ എന്താ ഏട്ടാ ഇത്തിരി ഒരു വില ഒക്കെ കുറച്ച് തരണ്ടേ ഇരുന്നൂറ് രൂപ വില കമ്മി ആണോ ആ അങ്ങനെ ആണെങ്കിൽ ശരി ഓ അതിൽ ഏറ്റവും വില കുറവ് ഏത് ആണ് അരളി എന്നാൽ അത് മാത്രം കുറച്ച് എക്സ്ട്രാ എടുത്തോ ആ രണ്ടും ഇരിക്കട്ടെ രണ്ടും എടുത്തോ തെച്ചി വേണ്ട തെച്ചി ശരി ആവില്ല അത് മറ്റെ ചെണ്ടുമല്ലി ഒക്ക എടുത്തോ കുറച്ച് നിറയെ എടുത്തോ അത് എത്ര ആയിരിക്കും നമ്മള് ഏകദേശം ഒര് വലിയ പൂക്കളം പറയുമ്പോൾ ഓ വലിയ പത്ത് കിലോ വേണ്ടത് ഉണ്ട് ഓ ആ അങ്ങനെ എന്നാൽ രണ്ട് കിലോ ഒന്ന് അഞ്ച് കിലോ ഒന്ന് അഞ്ച് കിലോ അങ്ങനെ എടുത്താൽ മതി രണ്ട് കളറും ആ ആ അങ്ങനെ എടുത്താൽ മതി ആ അങ്ങനെ എടുത്താൽ മതി ആ അത് എടുക്കാം വാങ്ങാം ആ റോസ്പൂ എടുത്തോ ആ അതും ഇരിക്കട്ടെ ആ റോസ്പൂ എടുത്തോ അത് എത്ര വേണ്ട വരും ഒരു മൂന്ന് കിലോ ഒക്കെ മതിയോ ആ ആ അത് ഇരിക്കട്ടെ ആ താമര എടുത്തോ അത് വേണ്ട ഒര് എണ്ണം ഇരുപത് രൂപ നമുക്ക് മുതലാവില്ല മുല്ലപ്പൂ വേണ്ട മുല്ലപ്പൂവിന് ഇപ്പം നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നു ഇല്ലെ അത്രയ്ക്ക് ഉള്ളൂ ആ ശരി അതും എടുത്തോളൂ മുല്ലപ്പൂ അത് ആ വേറെ ഇനി ഇപ്പം എന്താ പൂ ഉള്ളത് എന്നാൽ അത് ഒര് രണ്ട് ആ വേറെ ഒരു ഇത് ഇട്ട് രണ്ട് കിലോ അത്ര എടുത്തോ വേണ്ട വേണ്ട വേണ്ട അത് വേണ്ട അത് ഒന്നും വേണ്ട ഇത് മൊത്തത്തില് ഒര് എമൗണ്ട് ആവും തോന്നുന്നു അല്ലെ ആ ഉണ്ട് ആ ശരി എന്നാൽ പിന്നെ ആ റോസ്പൂ എടുത്തോ അത് ഫ്രീ ആയി തരുമോ വേഗം വാ വരണോ ഒര് രണ്ട് എണ്ണം തരില്ലെ തരുന്നത് കുറച്ച് വില കമ്മി ആക്കി തരുവോ ഡിസ്കൗണ്ട് തരണം ഇത് മൊത്തത്തിൽ നിങ്ങള് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞില്ലെ അത് അത് ശരിയാക്ക് കണക്ക് ഓ ശരി ശരി മതി മതി